ഊബർ ടാക്സി കിട്ടുമോ അതോ ഓട്ടോ ഏതെങ്കിലും സൗകര്യമുണ്ടാകുമോ ആ സമയത്ത് എനിക്ക് അവിടെ ചെന്ന് ഇറങ്ങിയാലും എനിക്ക് വീട്ടിലെത്താൻ എത്തി എത്തിച്ചേരാൻ ഏത് ഏത് സർവീസാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യം ആ സമയത്ത് ഏത് ഏത് ടൈപ്പ് വണ്ടി ആയിരിക്കും കാറാണോ ഓട്ടോയാണോ കിട്ടുന്നത് ആ ആ അതായത് ഏത് ട്രെയിനിലാണല്ലോ ഞങ്ങൾ വരുന്നത് അപ്പോൾ അത് കറക്ട് ചിലപ്പോൾ സമയം വ്യത്യാസം വരാം ചിലപ്പോൾ രണ്ട് മണിക്കൂർ ഡിലെ വരാം അപ്പോഴത് ചിലപ്പോൾ പത്ത് മണി എന്നുള്ളതുകൊണ്ട് നമുക്ക് രാത്രി പന്ത്രണ്ടു മണിയാവാം എത്താൻ അപ്പോഴതനുസരിച്ച് നമ്മൾ ഏതുസമയം എത്തിയാലും നമ്മൾക്ക് വീട്ടിൾ സേഫ് ആയിട്ട് വീട്ടിൽ എത്തണം അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ടാക്സി അറേഞ്ച് ചെയ്യാനോ അത് ഞാൻ അവിടെ വന്ന് ഊബർ വഴി ഊബർ ആപ്പ് വഴി വണ്ടി ബുക്ക് ചെയ്യണോ അതോ നമ്മളവടെ വന്നിട്ട് കൗണ്ടറിൽ പറഞ്ഞാൽ മതിയോ അതായത് പോലീസിൻ്റെ സഹായം തേടേണ്ടതുണ്ടോ നമുക്ക് വീട്ടിൽ എത്താൻ വേണ്ടിയിട്ട് ഇല്ലല്ലോ ആ ആ ആ ആ അറിയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒന്നാമത്തെ കാര്യം മഴയൊക്കെ ആയതുകൊണ്ട് ട്രെയിനിനൊക്കെ കറക്ട് സമയത്ത് വന്നു ചേരുമോ എന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ നമുക്ക് ഏത് ടൈമിൽ വന്നിറങ്ങുമ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിലെത്തണം അതനുസരിച്ചിട്ടാണ് പോകാൻ വരാൻ ആയത് ചിലപ്പോൾ തിരുവനന്തപുരത്തി നിന്ന് കറക്ട് പത്ത് മണിക്ക് ട്രെയിന് എടുത്തെന്നു ഉറപ്പ് രാവിലെ എടുത്തെന്ന് ഉറപ്പില്ലേ ഉറപ്പും ഇല്ലല്ലോ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ അതെ അതെ അതെ ആ എന്തായാലും ഞാൻ ഏകദേശം നമ്മളെ ഒരു മണിക്കൂറ് മുമ്പേ ഞാൻ നിങ്ങളുമായിട്ട് ഒന്നുംകൂടി കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയിരിക്കണം എന്താണെന്നു വച്ചാൽ നിങ്ങളെ വിശ്വസിച്ചായിരിക്കുമല്ലോ വീട്ടിലേക്കുള്ള യാത്ര പോകേണ്ടത് അല്ലാതെ എനിക്ക് വേറെ ഒരു വണ്ടി എടുക്കാനോ എനിക്ക് എന്നെ വന്ന് വിളിപ്പിക്കുവാനോ ആരും ഉണ്ടാവില്ല അപ്പം നമ്മൾക്ക് അല്ലേ ഡിപ്പെൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ സേഫ് ആയിട്ട് വീട്ടിലെത്തണം അതനുസരിച്ചിട്ട് വേണം എനിക്കൊന്നു വണ്ടി അറേഞ്ച്മെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഇപ്പോഴേ പറഞ്ഞു വെക്കണോ ഊബർ ഊബർ ആപ്പ് വഴി ബുക്ക് ചെയ്യാതെ നമ്മൾക്ക് ഈ കറക്റ്റ് ഏത് സമയത്തും വന്നിറങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരു ചേട്ടൻ്റെ ഒരു കോൺടാക്ട് നമ്പറ് തന്നുകഴിഞ്ഞാൽ അതും നന്നായിരുന്നു ആ സമയത്ത് അനുസരിച്ച് ഒരു മണിക്കൂർ മുന്നേയും നമ്മൾക്ക് വിളിക്കാമായിരുന്നല്ലോ ഒരു മണിക്കൂർ മുന്നേ വിളിച്ച് കഴിഞ്ഞാൽ പുള്ളി കറക്റ്റ് വന്ന് നിൽക്കുകയാണെങ്കിൽ നല്ലതല്ലേ എങ്കിൽ പിന്നെ ഒന്നുകൊണ്ടും പേടിക്കേണ്ടല്ലോ നമ്മൾക്ക് ആ വണ്ടികളിൽ തന്നെ അങ്ങ് പോകാമായിരുന്നല്ലോ ഊബർ ആപ്പ് വഴി ആണെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ നെറ്റ് കിട്ടണമെന്നില്ല ചിലപ്പം ആപ്പ് തന്നെ ചിലപ്പം നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ എത്തിക്കില്ല എനിക്ക് ഇതിനകത്ത് ഇതിന് മുമ്പേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് വച്ച് നമ്മൾ ഊബർ ടാക്സി ബുക്ക് ചെയ്ത് നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ട് ലൊക്കേഷൻ കൊടുത്ത് കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും ഹൗസ് നമ്പറിലേക്ക് ചെല്ലാറുണ്ട് പലപ്രാവശ്യവും അപ്പം അതുകൊണ്ട് നമ്മൾക്ക് അത് കൃത്യമായിട്ട് അത് കിട്ടണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഊബർ ആരുടെയെങ്കിലും ഒരു ടാക്സി ഒന്ന് സൗകര്യപ്പെടുത്തി നിങ്ങൾ ഊബർ ആപ്പു വഴി നമ്മൾക്ക് തന്നാൽ അത് ഏറ്റവും നല്ലതായിരുന്നു അല്ലെങ്കിൽ പാടല്ലേ പ്രത്യേകിച്ച് മഴയും പിന്നെ പ്രത്യേകിച്ച് രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റേതായ ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടിവരും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഏതായിരിക്കും നമ്മൾക്ക് സൗകര്യപ്രാപ്തം എടുക്കേണ്ടത് ഊബർ ടാക്സി ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടൈം അനുസരിച്ച് കിട്ടേണ്ടതില്ലല്ലോ ചിലപ്പോൾ വണ്ടി അവൈലബിൾ ആയിരിക്കില്ല ചിലപ്പോൾ വണ്ടി നമുക്ക് ആ ചിലപ്പം നമ്മൾ ഒന്ന് ഏതെങ്കിലും വണ്ടി എടുത്തു കഴിഞ്ഞാൽത്തന്നെ ചിലത് ഡ്രൈവർമാർ ക്യാൻസൽ ചെയ്തിട്ട് പോവും എമൗണ്ട് കുറഞ്ഞ കുറവാണെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് പോവും അങ്ങനെയൊക്കെ ഉള്ള സ്ഥിരം പരിപാടികളാണ് നിങ്ങളുടെ ഈ ഊബർ ടാക്സി വഴി നമ്മൾ നേരിടേണ്ടത് ചിലപ്പം നൂറ് രൂപയ്ക്കുള്ള ഓട്ടം അവർ ഇരുന്നൂറ് രൂപയൊക്കെ ആയിരിക്കാം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ട് അവർ പറയും ഇത്ര രൂപയാണ് ഇത് ഊബർ ടാക്സിയിൽ ഇത്ര ഒരു നൂറ് രൂപയിൽ നൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് കാണിക്കണെങ്കിൽ അവർ നമ്മളെ കയ്യിൽനിന്ന് നൂറ്റമ്പത് മേടിക്കാറുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി നമ്പറോ അല്ലെങ്കിൽ ഏജൻസിക്കാരെയോ കോൺടാക്ട് ചെയ്യണോ അതെയോ ഞാൻ ഈ ഊബർ ടാക്സി തന്നെ പിടിച്ചാൽ മതിയോ എന്നാണ് ആലോചിക്കുന്നത് ഓഹ് കുഴപ്പമില്ലല്ലോ നൂറ് ശതമാനം ഒറപ്പാണല്ലോ ഓക്കെ ഓക്കെ ആ ആ എന്തായാലും ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ ഊബർ ടാക്സി സർവീസ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ കെയറുമായിട്ട് ഞാൻ ബന്ധപ്പെടും ഓക്കേ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമുണ്ടാവരുത് എന്നു പറയുമ്പം നമ്മൾ നിങ്ങളെയൊക്കെ രാത്രികാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻ്റ് ചെയ്യുന്നത് ഊബർ സർവീസാണ് എന്നു വച്ചാൽ നമ്മൾക്ക് വേറെ പുറത്തു നിന്നൊരു ഡ്രൈവറെ വിളിച്ച് പോവുന്നത്ര സേഫ് അല്ല ഊബർ ടാക്സി ആവുമ്പോഴത്തേക്കും നമുക്കൊന്നുകൊണ്ടും പേടിക്കേണ്ടല്ലോ ഓക്കെ ഓക്കെ താങ്ക് യൂ